എന്റെ പ്രദേശം എന്നു പറയുന്നത് വിനോദ സഞ്ചാരങ്ങള്ക്ക് പറ്റിയ ഒരു സലമാണ് തോടുകളും വയലുകളും വയലില് വെള്ളം നിറഞ്ഞുകിടക്കുന്ന സമയത്തൊക്കെ ആണേല് വളരെയേറെ കാണാന് മനോഹര മായ സ്ഥലങ്ങളാണ് അപ്പോള് കേരളാ സര്ക്കാര് അവരുടെ പരിധിയില് നിന്ന് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഈ നാട്ടില് ചെയ്തിട്ടില്ല ആകെ വിനോദ സഞ്ചാരം എന്ന് പറയുമ്പോള് ആലപ്പുഴയുടെ വള്ളംകളിയാണ് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നാട്ടില് യുവജനങ്ങള് വള്ളമെടുക്കുകയും അതില് തുഴച്ചില് പരിശീലനങ്ങള് നടത്തുകയും കൂടുതല് എന്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ വളരെയേറെ ഗ്ലബുകള് കൂടി ചെറിയ വള്ളംകളികളും മറ്റുള്ള കാര്യങ്ങള് ചെയ്യുമ്പോള് വിദേശ ടൂറിസം ളല്ലെങ്കില് പോലും പ്രാദേശികമായിട്ടും ആടുത്ത പ്രദേശത്തുള്ളവരും ഇത് കാണുവാന് വരികയും അങ്ങനൊരു കൂട്ടായ്മയും ഒക്കെ നാട്ടില് സംജാതമായിരുന്നു ഇന്ന് അതിനൊക്കെ വളരെ കുറവാണ് എന്നാല് സര്ക്കാറിന്റെ അങ്ങനെയൊരു വലിയ പിന്തുണ ഈ പ്രദേശങ്ങളില് ലഭിക്കുന്നില്ല പിന്നെ എന്റെ ഒരു കാലത്ത് സാഹചര്യ പാരമ്പര്യമനുസരിച്ചു പറഞ്ഞ എന്റെ നാട്ടില് സ്റ്റാറെന്ന ഒരു മഹത്തരമായ ഒരു സാമൂഹ്യ സംഘടന ഉണ്ടായിരുന്നു സംസ്കാരിക സംഘടന ഉണ്ടായിരുന്നു ഈ സംഘടനയില് മെംബറായിരുന്ന ഞങ്ങള് ഈ ആലപ് കേരളത്തിലെ വിവിധ ജില്ലകളില് പോയി അത് സോങ്ങ് ആന് ഡ്രാമ ഡിവിഷന്റെ ഒരു നാടകം നടത്തുകയും അങ്ങനെ ആ നാടകം കാണാനായിട്ട് വളരെ ആളുകള് അത് കണ്ട് ആസ്വദിക്കുകയും ജാതി മത ഭേദങ്ങള്ക്കതീതമായി ചിന്തിക്കുവാന് പറ്റുന്ന ഒരു നാടകമായിരുന്നു അങ്ങനൊക്കെ കൂടുതല് ചെയ്മ് ഇന്നും ഒരുപക്ഷെ നമ്മള് ചില പരിപാടികള് ചെയ്ത് അല്ലെങ്കിലൊരു കായികമായ ഒരു പുതിയ ഇത് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊരു ഷോകള് നമ്മള് കാണിച്ചാല് ഇപ്പോഴും നമ്മള് ടൂറിസമായി വിദേശ ടൂറിസം ഇല്ലെങ്കില് പോലും നമ്മുടെ പ്രാദേശിക ടൂറിസത്തെ വളര്ത്തുവാന് നമുക്ക് സാധിക്കും എല്ലാ നാടിനും അതിന്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് പക്ഷെ ആ പ്രത്യേകതകളെന്തെന്ന് മനസ്സിലാക്കി നമുക്ക് അത് വികസിപ്പിച്ചെടുത്താല് നമുക്ക് അതില് നേടാവുന്നതാണ് ഇപ്പോള് തന്നെ എന്റെ പ്രദേശത്ത് നമുക്ക് ചെയ്യാവുന്ന വിനോദപരമായി നമ്മള് ഇപ്പോള് ആളുകളെ കുട്ടികളെ ആണേലും ഈ വള്ളത്തില് പരിചയം ഇല്ലാത്തവരായി ഈ കുട്ടനാട്ടില് ഞാന് കുട്ടനാട്ടുകാരനാണ് കുട്ടനാട്ടില് വെള്ളത്തില് പരിചയമില്ലാത്തവര് വളരെ അപൂര്വമാണ് അപ്പോള് ഒരു എക്സ്രസൈസ് കൂടി ആവും എന്നാല് ഇങ്ങനെ ഇന്നിപ്പോള് ഇവിടെ കുട്ടികള് കുറച്ചുപേരൊക്കെ അവിടെയും ഇവിടെയും ക്രിക്കറ്റ് കളിക്കുന്നതൊഴിച്ചാല് മറ്റ് വിനോദങ്ങള് പരിപാടികളോ അല്ലെങ്കില് സംഘടനാപരമായിട്ടുള്ള മറ്റു ഗ്ലബ്ബുകളുടെ പരിപാടികളൊക്കെ ഇപ്പോള് വളരെ കുറവാണ് എന്റെ ഒരു യൗവ്വനകാലഘട്ടത്തിലെന്നു പറഞ്ഞാല് ഒരു നാട്ടില് തന്നെ നാലും അഞ്ചും ഗ്ലബ്ബുകള് കൂടി പല പരിപാടികള് നടത്തുന്നു അപ്പോള് അടുത്തുള്ള പ്രദേശത്തുനിന്നുള്ള ആളുകള് പോലും ഈ പരിപാടികള് കാണുവാനും അതില് സംബന്ധിക്കുവാനുമൊക്കെ വളരെ ഏറെ ഒരു പ്രവണ്ത കാണിച്ചിരുന്നു ഇന്നതൊക്കെ ചുരുങ്ങി ഇന്ന് യുവാക്കളില് കൂടുതലായി കണ്ടുവരുന്നത് അവര്ക്ക് മൊബൈലും നെറ്റുവര്ക്കുമായും മാറിയിരിക്കുകയാണ് ഒരു കുട്ടികളിന്ന് പുറത്തോട്ടു പോലുമങ്ങനെ ഇറങ്ങാറില്ല അവരുടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെങ്കില് അത് പോവുക വരുക മുറിക്കകത്തിരുന്ന് ഇയ്യ അതിനനുസരിച്ച് രോഗങ്ങളും ഒറ്റപ്പെടലുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാല് നമ്മള് സമൂഹത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുക മറ്റു കാര്യങ്ങളിലേക്ക് ആക്റ്റീവാവുമ്പോള് നമുക്കതിന്റെതായിട്ടുള്ള ഗുണങ്ങള് നാടിനും സമൂഹത്തിനും അതും ടൂറിസ അഭിവൃദ്ധിയും എല്ലാം വ്യവസായവും വ്യവസായപരമായി നമുക്ക് ചെയ്യണമെങ്കില് വ്യവസായകരമായിട്ടിപ്പോള് തന്നെ പലര്ക്കും ഇന്ന് നേരിടുന്നത് ഒരുപറ്റം ആള്ക്കാര് പഠിച്ച് കുട്ടികള് പഠിച്ചു അവര് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി സമ്പാദിക്കുന്നു എന്നാല് അതു കൊണ്ടായില്ല നാളെ ഒരു സമയത്താ രാജ്യത്ത് എന്തെങ്കിലും വന്നുകഴിഞ്ഞാല് എങ്ങനെ ജീവിക്കും എന്നതിനെക്കുറിച്ച് നമ്മളാരും ചിന്തിക്കുന്നില്ല നമ്മള്ക്ക് സ്വന്തം നാട്ടില് എന്തെങ്കിലും ടൂറിസങ്ങള് കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമങ്ങള് നമ്മള് ശ്രമിക്കുക സര്ക്കാര് തലങ്ങളില് ഇത് വളരെ വിരളമാണ് നമ്മളെ ഇപ്പോള് തന്നെ ഈ എനിക്കിപ്പോള് ഒരു ബാങ്ക് ലോണുകളോ മറ്റൊന്നോ ടു ഈ വ്യവസായത്തിലേക്ക് കിട്ടില്ല എങ്കില് പോലും വ്യവസായം കിട്ടീല്ലേ ന്റെ വേണ്ട എങ്കിലും യുവാക്കളിലേക്കൊരു ഇത്പോലെ ഒരു വ്യവസായങ്ങള് തുടങ്ങുവാന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യവുമായി വന്നാല് സര്ക്കാര് തലത്തില് നിന്നും അതിനനുമതികള് ഉണ്ട് പല പദ്ധതികള് ഉണ്ടെങ്കില് പോലും നമ്മളീ പ്രാദേശിക ഓഫീസുകളുമായി ബന്ധപ്പെട്ടുകഴിഞ്ഞാല് അവര് മുടന്തന് ന്യായങ്ങള് പറഞ്ഞ് അ അതിനെ ഇല്ലായ്മയാക്കുകയാണ് ചുരുക്കം പറഞ്ഞാല് ഈ ഉദ്യോഗസ്ഥരാണ് ഈ നാട്ടിലെ ഈ വ്യവസായവും ടൂറിസവും എല്ലാം നശിപ്പിക്കുന്നു എന്നു പറയാന് സര്ക്കാറിന്റെ പ്രതിപുരുഷന്മാരായിരിക്കുന്ന ഈ ജോലിക്കാരും നമ്മുടെ മനസ്സിനെ ആകെ നശിപ്പിച്ചുകളയും നമ്മളൊരാശയമായി ഒരു പുതിയൊരാശയമായി ഒരു വ്യവസായമോ എന്തെങ്കിലും അല്ലേ ടൂറിസത്തിന്റെ തന്നെ ഒരാക്ടിവിസ്റ്റായി ഒരു പത്ത് വള്ളം മേടിച്ചിട്ടുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള ആള്ക്കാരെ ലൈസെന്സ് എടുത്തും അങ്ങനുള്ളൊരു കാര്യത്തിനു ചെന്നാല് പോലും ഇവര് നമ്മളെ നിരാശപ്പെടുത്തുകയെ ഒരിക്കലും ചെയ്യുന്നില്ല കാര്യം അവരൊരു സര്ക്കാര് ജോലി ആയിക്കഴിഞ്ഞാല് അവരുടെ കാര്യം സുരക്ഷിതമായി എന്നാല് പ ബാക്കിയുള്ളവരെങ്ങനെ ജീവിക്കണം അവര്ക്ക് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഇവര് ചിന്തിക്കുന്നില്ല അതാണ് മെയ്നായിട്ട് തോന്നുന്നെനിക്ക് തോന്നുന്നു അല്ലെങ്കില് നമ്മുടെ നാട്ടില് യുവാക്കളും മറ്റ് പിന്നോക്കം നില്ക്കുന്നവര്ക്കുമൊക്കെ ഈ ടൂറിസവും വ്യവസായവും നല്ല രീതിയില് കൊണ്ടുപോവാം ഇപ്പോള് തന്നെ നമ്മളിങ്ങനൊരു പരിപാടി ചെയ്തുകഴിയുമ്പോഴേക്കും ഒരു ടൂറിസമായിപ്പോയാല്തന്നെ പത്തു പേര്ക്കാഹാരം കൊടുക്കുന്നു അല്ലേ അഞ്ചുപേര്ക്ക് വിഹാരം കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞാല് അതിലൂടെയുള്ള നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെങ്ങനെങ്കിലും നടന്നുപോവാനായിട്ട് സാധിക്കും പക്ഷെ ഈ ഇതിനകത്തെനിക്ക് പ്രധാനമായും തോന്നുന്നെ നമ്മുടെ നാട്ടിലെ സര്ക്കാര് ഉദ്യോഗസ്ഥന്മാര്ക്ക് ഒരിക്കലും അവര്ക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നില്ല അവര് സുരക്ഷിതമായിക്കഴിഞ്ഞാല് അവര്ക്ക് ശമ്പളം കിട്ടുന്നതുകൊണ്ടായിരിക്കാം അവര്ക്ക് അതിനോടൊന്നുമൊരു കൂറില്ല നമ്മളൊരു കാര്യത്തിന് ചെന്നാല്പോലും നമ്മുടെ വ്യക്തിപരമായ എന്ത് കാര്യത്തിനു ചെന്നാലും അവര് നെഗറ്റീവാക്കുന്നതും അവര് സാധിച്ചുതരാന് വളരെ ഇതാണ് ഇപ്പോള് നമ്മള് സര്ക്കാര് തലത്തിലും നമ്മളാദ്യമായി ഈ സര്ക്കാര് ഈ ഉദ്യോഗസ്ഥന്മാര്ക്ക് വേണ്ടവിധത്തിലുള്ള നിര്ദ്ദേശം കൊടുക്കണം കൊടുത്താല് ഈ വ്യവസായവും ഈ ടൂറിസവും ഒക്കെ നമ്മള്ക്ക് നടത്താം യുവാക്കള്ക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും യുവാക്കള്ക്കും മറ്റുള്ളവര്ക്കും താല്പര്യമുള്ളവര്ക്ക് ഈ സര്ക്കാര് തലങ്ങളിലുള്ള വ്യക്തികള് അവരെ പ്രോത്സാഹിപ്പിച്ചാല് തീര്ച്ചയായും നമ്മുടെ നാട്ടില് വികസനവും ടൂറിസവും എല്ലാം ഭംഗിയായി കൊണ്ടുവരാന് സാധിക്കും